ഒരു ഗാനം കേൾക്കുമ്പോൾ നമ്മൾ ആ ഗാനം നമുക്ക് ഇഷ്ടപ്പെട്ടത് ആണെകിൽ നമ്മൾ ആ ഗാനത്തിൻ്റെ കൂടെ നമ്മൾ കൂടെ പാടും അപ്പോൾ പാടുമ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ നമ്മൾ ഡാൻസ് കളിക്കും ചിലപ്പോൾ കൈ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഓരോ ഓരോ ഇത് കാണുക ഒക്കെ ചെയ്യും പിന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഓരോ ഓരോ ആംഗ്യങ്ങൾ നമ്മൾ ചെയ്യുമല്ലോ പിന്നെ നമ്മൾ സ്വന്തമായിട്ട് പാടുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഓരോ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ കണ്ണടച്ച് ആ പാട്ടിൽ ഇങ്ങനെ ലയിച്ചു പാടും പിന്നെ നമ്മൾ പാടുമ്പോൾ നമ്മുടെ മുഖ ഭാവം ചിലപ്പോൾ സങ്കടമുള്ള പാട്ടാണെങ്കിൽ നമ്മൾ ആ രീതിയിൽ നമ്മൾ സങ്കടമായിട്ട് തന്നെ നമുക്ക് തോന്നും ഇഷ്ടമുള്ള നമ്മളെ സന്തോഷം തരുന്ന പാട്ടാണെകിൽ നമ്മൾ ആ രീതിയിലായിരിക്കും നമ്മുടെ മുഖ ഭാവങ്ങൾ പോവുക ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഭക്തിഗാനം കേൾക്കുന്ന പാട്ട് ഇപ്പോൾ നമ്മൾ ഒരു ഭക്തിഗാനം കേൾക്കുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ കൊള്ളുന്ന രീതിയിലുള്ള പാട്ടുകളാണെങ്കിൽ നമുക്ക് നമ്മുടെ കണ്ണിൽ കൂടെ അറിയാതെ നമ്മുടെ കണ്ണു നീരൊഴുകും പിന്നെ നമ്മൾ സങ്കടത്തിൽ സങ്കടമല്ല സന്തോഷത്തിൽ വരുമ്പോൾ വരികയാണെങ്കിലും നമ്മുടെ കണ്ണിൽ കൂടെ അറിയാതെ സന്തോഷം വന്നാലും കരയുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അങ്ങനെയും പാടും പിന്നെ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ പാടുമ്പോൾ നമ്മുടെ പാട്ടിൽ നമ്മൾ ചിലപ്പം അറിയാതെ നമ്മൾ ചിലപ്പം താളം പിടിച്ചെന്ന് വരാം കൈ കൊണ്ട് ഓരോ ആ രീതികൾ ഇങ്ങനെ നമ്മൾ ചെയ്തെന്ന് വരാം പിന്നെ നമ്മുടെ മുഖഭാവങ്ങൾ ചിലപ്പോൾ ചിലപ്പോൾ ചിരിച്ചു കൊണ്ട് ആയിരിയ്ക്കും പാടുന്നത് ചിലപ്പോൾ നമ്മൾ ചിരിക്കാതെ ചിലപ്പോൾ നമ്മൾ ആ പാട്ടിൻ്റെ ഓരോ വരികൾ ഇങ്ങനെ കേട്ടുകൊണ്ട് കേട്ടു നമ്മൾ ആ രീതിയിൽ ആയിരിക്കും നമ്മൾ പാടുക പിന്നെ നമ്മുടെ പാട്ട് ഇഷ്ടപ്പെട്ട നമ്മുടെ മറ്റുള്ളവർ നമ്മുടെ പാട്ട് കേട്ട് എന്താണ് പറയുന്നത് അനുസരിച്ചു നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ ഒരു പാട്ടു പാടുമ്പോഴത്തേക്കിന് ഒരാൾ അതും അത് അനുസരിച്ച് താളം പിടിക്കും പിടിക്കുകയാണെങ്കിൽ നമ്മുടെ കൈയ്യും അറിയാതെ താളം പിടിക്കും പിന്നെ എന്തുവാണ് ആ ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഓരോ രീതി രീതികളൊക്കെയാണ് പാട്ടിൽ നമ്മൾ ചെയ്യാറുള്ളത്